ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വരുന്ന ഗതാഗത മാർഗ്ഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലില്ലാത്ത ഗതാഗത മാർഗ്ഗങ്ങളില്ല ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ റോഡ് റോഡുണ്ട് റെയിൽവേ സ്റ്റേഷൻ അതായത് റെയിൽവേ ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വിമാനത്താവളങ്ങളുണ്ട് പിന്നെ എന്തിലധികം പറയുന്നു വാട്ടർ വേ അതായത് സീ വേ വരെയുണ്ട് ബോട്ടുകൾ കപ്പലുകൾ വരെ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാപ്പാട് ബീച്ച് അവിടെയൊക്കെയാണ് ആദ്യമായിട്ട് വാസ്കോ ഡ ഗാമ കാലുകുത്തിയത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ കോഴിക്കോട് ജില്ലയ്ക്കില്ലാത്ത ഗതാഗത മാർഗങ്ങൾ വളരെ കുറവാണ് എന്താ പറയുക ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാട് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗതാഗത മാർഗ്ഗങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് ഇപ്പോൾ സാധനങ്ങളോ ആളുകളോ എന്താണെന്ന് വെച്ചാലും ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഇതും നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം എന്താ പറയുക അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അവൈലബിളാണ് അതുകൊണ്ടുതന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല